ഞാൻ ഇഷ്ടംമാതിരി ഗെയിം കളിച്ചിന് എതൊക്കെയെന്നു വെച്ചാൽ ഫ്രീ ഫയർ കോൾ ഓഫ് ഡ്യൂട്ടി ഫാർ ലൈറ്റ് പബ്ജി ഇതിലേറ്റവും ഇഷ്ടപ്പെട്ട കളിയെന്നു വെച്ചാൽ നിക്ക് പബ്ജിയാണ് പബിജീന്ന് പറഞ്ഞാ അയിനെ വെല്ലണൊര് വയലൻസ് കളി വേറെല്ല ഏക്കമി എം ഫോറ്ന്നക്കെ ള്ളോടത്ത് യു എം പി യു സി ള്ള സാധനങ്ങളൊക്കെയെടുത്ത് ഡി പി യൊക്കെ ഗണ്ണൊക്കെയെടുത്ത് ബാക്കിൽ വെച്ചു സ്കോഡ് വയ്പ്പ് ചെയ്യുമ്പോഴുള്ള സന്തോഷം മോനെ ഞാൻ എങ്ങനെയാ പറയുവൊക്കെ ഞാൻ ഒരു ദിവസം ഇങ്ങനെ കളിച്ചു കൊണ്ടിരിക്കണീ അപ്പെൻ്റെടുത്ത്ക്ക് ഒരു സ്കോഡ് റഷ് ചെയ്ത് വന്നേ ആദ്യത്തെ ഓ ഒരാൾ വേറെ എവിടുന്നൊക്കെയോ വന്നങ്ങാട്ട് എയ്ച്ചറിയില്ല നാലാൾക്കാരിട്ട് ലാസ്റ്റൊരാളിട്ട് വൺ വേ ഫൈവ് തീർത്ത് അല്ലാണ്ടത് നിർത്ത് അപ്പം കിട്ടിയ മനഃസുഖം അഹ്അതു പറയാൻ കഴിയാത്തത് മനഃസുഖാ ഞാൻ പേസ് അടിച്ചീനി പെസ് കുറേ എൻ്റെ എൻ്റെ രണ്ടു വർഷം അല്ലെങ്കിൽ മൂന്നു വർഷം പക്കാ അക്കൗണ്ടാക്കീനീ അതിലാർക്കിട്ട് എം ബപ്പെ മെസ്സി നെയ്മർ ലവൻഡോസ് റോബേട്ടാ കാർലോസ് ഇവരെല്ലാം ഉണ്ടിനി ൻറ്റ അക്കൗണ്ട് പോയി എതാൻ ലംബാഡ് മത്താ യുസി എല്ലാരുണ്ടിനി ഇത്ര നല്ല അക്കൗണ്ടും പോയി ഞാൻ എന്നിട്ട് എൻ്റെ ഐ ടിയും പാസ് വേർഡും ഒക്കെ പാടെ എടുത്തു കൊണ്ട് അടിച്ചു നോക്കിയിട്ടൊക്കെ കിട്ടിയതുമില്ല പിന്നെ ഫ്രീ ഫയർ മൂന്നു വർഷം പഴക്കമുണ്ട് അതിനും ഞാൻ കളിച്ചിട്ട് ആദ്യത്തെ അപ്ഡേറ്റൊക്കെപ്പാടെ വന്നാൽ ആ ഫ്രീ ഫയറെന്നുള്ള ഗെയിമിനെ ആകപ്പാടെ ഒഴിവാക്കി തകർത്തു എന്നാലും പബ്ജി അതൊരു ജാതി സാധനാ എച്ചിഷ്ടാകാൻ കാരണം അതിലത്തെ വയലൻസ് സിക്സക്കെ കളിച്ചാ ദുരോള്ള എനിമീനെ ടക് ടക് ടക് ടക് ടക്കെന്ന് പറഞ്ഞു കൊണ്ട് ഇടുമ്പോൾ അങ്ങനത്തൊരു രസം എവിടുന്നും കിട്ടില്ല ആടെ എവിടെയും നിർത്താണ്ട് എയ്റ്റ് എക്സ് ഇട്ടാണ്ട് ഇറാങ്കിൾ ഇറാങ്കിളത്തെ ഒരു സ്ഥലത്തെന്നു അപ്പുറത്തെ സ്റ്റേറ്റിലെ പോച്ച് നിക്കീലേക്ക് സ്കോപ്പ് ചെയ്താണ്ട് അടിച്ചുമ്പോൾ ഓൻ്റെ തലമണ്ട പൊളിയണ ആ ഒച്ച ടം അതൊരു പൊളി ടഫാ തനെ ഇങ്ങൾക്ക് പറഞ്ഞാലതു മനസ്സിലാവില്ല കളിച്ചു നോക്കണ്ട സാധനാ ഇങ്ങനത്തെ ഈ പബ്ജിയൊക്കെ നമ്മളിന്ത്യക്കാർ ബാൻ ചെയ്തു യത്തീം ആണോ ആവോ പടച്ചവനറിയാം ഇതിൻറ്റൊക്കൊപ്പം കളിക്കണ സന്തോഷം വേറെ ഏത് ഗെയിം കിട്ടിയാലും നമ്മക്കൊണ്ട് പറ്റില്ല പബ്ജിസ്തം പബ്ജിയാണ് പൊളി പബ്ജി പൊളി ഞാനിത്രയും കാലം കളിച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഗൈയിമെന്നു വെച്ചാൽ പബ്ജിയാണ്